ഗ്രാമ പ്രദേശത്തെ കളികൾ കൊണ്ട് കുട്ടികൾക്ക് കുറെ ഉപകാരമുണ്ട് അവർക്ക് കളിക്കുമ്പോള് അവരുടെ ശാരീരിക നില മെച്ചപ്പെടും ആരോഗ്യം വർധിക്കും അത് പോലെ സാമൂഹിക കാര്യങ്ങളില് അവർക്ക് താൽപര്യമുണ്ടാവും അത് പോലേ അവര് കളിക്കുമ്പോള് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാനും സൗഹൃദ ബന്ധം പുലർത്താനുമൊക്കെ സാധിക്കും അതുപോലെ ഇവർ കളിക്കുന്നത് കൊണ്ട് അവരുടേ ബുദ്ധി പ്രവർത്തിക്കും ഇപ്പോള് അധിക കുട്ടികളും ഫോണിന്മേല് കളിക്കലാണ് പരിപാടി അതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും അവരങ്ങനെ നോക്കില്ല അവർക്ക് പ്രകൃതിപരമായിറ്റ് ഒന്നും ഈ ഫോണില് കളിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല ഈ ഗ്രാമ പ്രദേശത്ത് കളിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് പ്രകൃതിയുമായിണങ്ങാനും അതേ പോലേ നല്ല രീതിയില് ആളുകളോട് ഇടപെടാനും സാധിക്കും അതുപോലേ ജനങ്ങളെ സഹായിക്കാനും അവരോട് സംസാരിക്കാനും തമാശ പറയാനൊക്കെ അവർക്ക് നേരങ്കിട്ടും അതേപോലെ ഗ്രാമപ്രദേശത്ത് കളിക്കുമ്പോൾ അവിടത്തെ കൂടുതല് സ്ഥലങ്ങള് കണ്ടു പരിചയപ്പെടാനും അതേപോലേ സ്ഥലത്തുള്ള ആൾക്കാരെ പരിചയപ്പെടാനും സാധിക്കും